പതിനെട്ടാം തീയതി ഫെബ്രുവരി മാസം വർഷം രണ്ടായിരത്തിരണ്ട് പത്തൊമ്പതാം തീയതി മെയ് മാസം രണ്ടായിരം ഇരുപതാം തീയതി ഡിസംബർ മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണുറ്റി ഒൻപത് ഇരുപത്തെട്ടാം തീയതി ഏപ്രിൽ രണ്ടായിരത്തി

ഇരുപത്തിരണ്ട് ജനുവരി ആയിരത്തിത്തൊള്ളായിരത്തി എണ്ണൂറ്റി ആറ് ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല്